ആ പിന്നെ ഇത് എലഗൻ്റ് കേറ്ററിങ് സർവീസല്ലേ ആ പിന്നെ ഇവിടെയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഫങ്ഷനാണ് അപ്പോള് അതിന് എത്ര തരം ഫുഡാണ് ആവശ്യമുണ്ടാവുക

ഞങ്ങള് ലക്ഷ്വറിയാണ് ഉദ്ദേശിക്കുന്നത് ഐറ്റംസ് ഡെസേർട്ട് എത്രയുണ്ട് ആ ഒരു ആട് ബിരിയാണി പിന്നെ ചിക്കന് മന്തി മൂന്ന് തരായിക്കൊള്ളട്ടെ ആ നിങ്ങളുദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് ജ്യൂസ്

പിന്നെ കേക്ക് അങ്ങനത്തെ ഇത് അല്ല സ്റ്റേജിൻ്റെ വര്ക്ക് നിങ്ങളാണോ അതെ അപ്പോള് എത്ര ഫണ്ട് എത്രയൊക്കെയാകും അതെ ഞാൻ വിളിക്കാം കേട്ടോ നമസ്കാരം